എൻ്റെ കാഴ്ചപ്പാടിൽ കുട്ടികൾക്ക് ഏറ്റവും ചെറിയ പ്രായം മുതൽ ഇതുപോലെയുള്ള കലകൾ പഠിക്കാൻ ആരംഭിക്കുന്നതാണ് നല്ലത് കാരണം എത്ര ചെറിയ പ്രായത്തിൽ അവരത് പഠിച്ച് വളരുന്നുവോ അത്രത്തോളം അവർ അവർക്കൊരു പെർഫെക്ഷൻ ഉണ്ടാവും വരും കാലങ്ങളിൽ അതുവല്ല കുട്ടികൾക്ക് ഇതുപോലെയുള്ള കാര്യങ്ങളിൽ താല്പര്യം കൂടുന്തോറും മറ്റുള്ള ചീത്ത സ്വഭാവങ്ങൾ അല്ലെങ്കിൽ ദുശ്ശീലങ്ങൾ ഒക്കെ അവർക്ക് ഉണ്ടാവുന്നത് കുറയുമെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ എനിക്ക് തോന്നുന്നത് ഇന്നത്തെ കാലത്ത് കുട്ടികൾ ഇപ്പോഴെ ഫോണിലൊക്കെ ആണേലും കൂടുതൽ സമയം ചിലവഴിക്കാറുണ്ട് അപ്പോൾ ഇതുപോലെയുള്ള മറ്റുള്ള പ്രവർത്തനങ്ങളിൽ അവരേർപ്പെടുമ്പോൾ അവർക്ക് അതിലേക്ക് കൂടുതൽ താല്പര്യം തോന്നുകയും അങ്ങനെ അവരുടെ ആ ഒരു ബാല്യകാലത്തിൽ തന്നെ അവർക്ക് നല്ലൊരു ചിത്രകാരനോ ചിത്രകാരിയോ ഒക്കെയായിട്ട് മാറാനും സാധിക്കും അങ്ങനെയുള്ള താൽപര്യങ്ങൾ അവർക്ക് അവർ അവർക്കുള്ളിൽ വളർന്നു വരുമ്പോൾ അവരുടെ തലമുറയെ അല്ലെങ്കിൽ പിന്നീടുള്ള അവരുടെ ജീവിതത്തിൽ അത് വഴി അവർക്ക് സമ്പാദിക്കാൻ വരെ കഴിഞ്ഞേക്കാം അപ്പോൾ ഇതുപോലെയുള്ള കലകളൊക്കെ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ എത്രയും കുഞ്ഞിലെ തന്നെ തുടങ്ങുന്നതായിരിക്കും നല്ലത് എന്നെ സംബന്ധിച്ചെടുത്തോളം എനിക്ക് വരയ്ക്കാൻ അത്യാവശ്യം അറിയുന്ന ഒരാളാണ് പക്ഷേ ഞാനിതുവരെ പഠിച്ചിട്ടില്ല അപ്പോൾ എൻ്റെ ഒരു തോന്നൽ ശരിയാണെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഒരു കുട്ടിക്കാലം മുതലെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് തുടങ്ങിയിരുന്നെങ്കിൽ ഇപ്പോൾ എനിക്ക് അത്യാവശ്യം നന്നായിട്ട് വരയ്ക്കാൻ തന്നെ സാധിച്ചേനെ ഇപ്പോൾത്തന്നെ ഞാൻ അതിന് ഒരുപാട് ശ്രമിക്കാറുണ്ട് അതായത് മറ്റുള്ളവരൊക്കെ വരച്ച് കാണുമ്പോഴാണെങ്കിലും ചിത്രം ഒക്കെ വരയ്ക്കുന്ന ആൾക്കാരെ കാണുമ്പോൾ തന്നെ എന്തോ എന്തെന്നില്ലാത്തൊരു അഭിമാനം നമുക്ക് തന്നെ ഭയങ്കര അസൂയ തോന്നി പോകാറുണ്ട് കാരണം ഓരോരുത്തരും ഇന്നത്തെ കാലത്തൊക്കെ വരയ്ക്കുന്ന പടങ്ങൾ കാണുമ്പോൾ എന്താ നമുക്ക് കൗതുകവാണ് അത്ര ഭംഗിയായിട്ടാണ് അവർ വരയ്ക്കുന്നത് അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ചിത്രരചന പോലെയുള്ള കാര്യങ്ങൾ അത് കുട്ടികളൊക്കെ ഇപ്പോൾ ഇപ്പോഴത്തെ പൊടി പിള്ളാരൊക്കെ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് തുടങ്ങീട്ടുമുണ്ട് പക്ഷേ എന്നെ സംബന്ധിച്ച് പണ്ടത്തെ അപേക്ഷിച്ച് ഇന്നത്തെ കാലത്ത് കുട്ടികൾ കളികൾക്കായിക്കോട്ടെ അല്ലെ കലാപരമായ കാര്യങ്ങൾക്കായിക്കോട്ടെ അങ്ങനെയൊള്ള കാര്യങ്ങൾക്ക് പകരം ഫോണിൽ നോക്കുകയും ഗെയിം കളിക്കേം അങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് മുൻതൂക്കം നൽകിയിട്ടുള്ളത് അപ്പോൾ ഇതുപോലെയുള്ള ചെറിയ ചെറിയ പ്രവർത്തനങ്ങൾ അവരുടെ ജീവിതശൈലിയെ തന്നെ മാറ്റിമറിക്കും അവർക്ക് കഴിവുണ്ടാകും അതുപോലെതന്നെ ആ കഴിവ് പിന്നീട് വളർന്ന് വരും അതിലൂടെ അവർക്ക് സമ്പാദിക്കാനൊക്കെ സാധിക്കും അപ്പോൾ കുട്ടികൾ എത്രയോ നേരത്തെ ഇതൊക്കെ പഠിച്ച് തുടങ്ങുന്നോ അത്രത്തോളം നല്ലതായിരിക്കുവെന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ എൻ്റെ വീട്ടിലാണെങ്കിൽ എൻ്റെ ചേച്ചി ചിത്രം വരയ്ക്കാറുണ്ട് ഇപ്പോൾ ഞാൻ ആണെങ്കിലും പഠിച്ചിട്ട് ഒന്നുവില്ല എങ്കിലും എനിക്ക് ചിത്രം വരയ്ക്കാൻ ഇഷ്ടവാണ് അല്ലെങ്കിൽ ഞാനൊരു പടം വരച്ച് അത് കമ്പ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അത് കാണുമ്പോൾ എനിക്ക് തന്നെ എന്തന്നില്ലാത്ത ഒരു സന്തോഷമാണ് മറ്റുള്ളവർ വരയ്ക്കുന്നത് കാണുമ്പോഴും അത് തന്നെ അപ്പം ഇതുപോലെയുള്ള കഴിവുകളൊക്കെ കുട്ടികളിൽ കുഞ്ഞുനാൾ മുതലേ ഉണ്ടാകുവാണെന്നുണ്ടെങ്കിൽ അത് അവരുടെ വരും കാലത്തെ അല്ലെങ്കിൽ അവർടെ ഫ്യൂച്ചറിനെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും അപ്പോൾ ഒരു ആറ് വയസ്സ് മുതലൊക്കെ തന്നെ അവർക്ക് ഒരു അറിവൊക്കെ വെച്ച് വരുന്ന പ്രായം തൊട്ടേ ഇതുപോലെ ചെറിയ ചെറിയ പ്രവർത്തനങ്ങളൊക്കെ ചെയ്ത് തുടങ്ങാണെന്നുണ്ടെങ്കിൽ അത് വളരെ നല്ലതായിരിക്കുവെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം